കേരളത്തില് ഇന്ന് സാധാരണയായി കുറേ നല്ലവണ്ണം ആരോഗ്യ പരിരക്ഷാ സേവനങ്ങള് ഉണ്ടാകുന്നു എന്നു വെച്ചാലിപ്പോൾ നമുക്ക് നമുക്ക് അത്യാവശ്യം അത്യാവശ്യമായ എന്തെങ്കിലും ഒരു സൗകര്യം നമുക്ക് നമുക്ക് നമ്മുടെ ജില്ലയിൽ കിട്ടുന്നില്ല ഇപ്പോൾ ഒരു അസുഖത്തിന് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിനിപ്പോൾ നമ്മളൊരു ഗവണ്മെന്റ് ഹോസ്പിറ്റലില് പോയിയെന്നു പോയാൽ നമ്മൾ അവിടെ നിന്ന് നല്ലവണ്ണം നല്ലവണ്ണമവർ നമ്മളുടെ അവഗണിക്കുന്നുണ്ട് നല്ലവണ്ണം അവിടവിടെ പൈസയൊന്നും കൊടുക്കേണ്ടയെന്നായിരിക്കും പക്ഷെ ഇപ്പോൾ രണ്ട് രൂപ രണ്ട് രൂപ അതു പോലെ അങ്ങനെയാകും വേണേ ഇത് എന്നിട്ട് നമ്മൾ എത്ര നമ്മൾ രാവിലെ പോയാൽ ഉച്ചവരെ നമ്മുടെ ക്യൂ നിന്നു നിന്ന് ബുദ്ധിമുട്ടാകുന്നുണ്ട് ബുദ്ധിമുട്ട് ക്യൂ നിൽക്കുന്നുണ്ട് നല്ലവണ്ണം ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട് അവർ നമ്മളെ പരിഗണിക്കുന്നില്ല നല്ലവണ്ണം അവർ ഇപ്പോൾ അവർ നമ്മളുടെ മൈന്ഡ് ചെയ്യുന്നില്ല ഒരു കണക്കിനു പറഞ്ഞാൽ അങ്ങനെയാണ് മൈന്ഡ് ചെയ്യുന്നില്ല അവരവരുടേതായ കാര്യങ്ങള് ചെയ്തു കൊണ്ട് നമ്മളെ പരിഗണിക്കാത്തൊരവസ്ഥയാണ് ഈ ഇന്ന് ഗവണ്മെന്റ് ഹോസ്പിറ്റലുകളിലെല്ലാം കാണാന് സാധിക്കുന്നത്

ഇപ്പോൾ പ്രൈവറ്റിലിപ്പം എല്ലാവർക്കും പോകാന് പറ്റില്ല അവിടെ നല്ലവണ്ണം പൈസ നമ്മുടെയെന്നു വാങ്ങിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വലിയ വി ഇപ്പോൾ നമ്മൾ നമ്മളുടെ ജില്ലയില്ത്തന്നെ നമ്മളീകാ ജില്ലയില്ത്തന്നെ നമുക്കാവശ്യമായ ഒരു സൗകര്യം നമുക്കിവിടെ കിട്ടുന്നില്ല ഹോസ് ആശുപത്രികളില് നമുക്ക് കിട്ടുന്നില്ല അതിനു വേറൊരു നാട്ടിലേക്ക് നമ്മൾ പോകണം നല്ല ഒരിത് സ് ഇപ്പോൾ എല്ലാ നെ വലിയ വലിയ ഹോസ്പിറ്റലുകള് പോയിട്ടാണ് എല്ലാം സുഖമായിട്ടു വരുന്നത് അധികം ഇപ്പോൾ ഈ മഴക്കാലത്തും ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം രോഗം രോഗം വരുന്നുണ്ട് നല്ലവണ്ണം രോഗം ഡെങ്കിപ്പനി അങ്ങനെ കൊറോണ കൊറോണ കൊറോണ വന് എന്നു കയി വന്നത് കഴിഞ്ഞത് മുതലാണ് ആർക്കും രോഗം ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും ആയിട്ട് ഉണ്ടാകും ഉണ്ടാകുന്നുണ്ട് ഒ ഒന്നല്ലെങ്കില് മറ്റൊന്നായിട്ട് ഒന്നും മാറുന്നില്ല ഇതിനു ശേഷം ഈ കൊറോണ വന്നതിനു ശേഷം ഈ ചുമയെന്നു പറഞ്ഞാൽ ചുമ വന്നാൽ ഒരു നാലഞ്ച് മാസം കണ്ടിന്യുവസായിട്ടുണ്ടാകുന്നു ഈ ചുമയെല്ലാം

ഇതിനൊന്നും എത്ര ഗ ഗവണ്മെന്റ് ഹോസ്പിറ്റലില് നിന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലും എവിടെ പോയാലും ഹോമിയോയെന്നും ആയുര്വേദം ഒന്നെടുത്തുപ്പോലും മാറുന്നില്ല ഈ ചുമ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തു മരുന്നു കുടിച്ചാലും മാറുന്നില്ല അങ്ങനത്തൊരു അവസ്ഥയാണിപ്പോൾ നല്ലാശുപ ഇപ്പോൾ നമുക്കിപ്പം നമ്മളുടെ നാട്ടിൽ നല്ലൊരു ഹോസ്പിറ്റ് ഹോസ്പിറ്റലുകൾ ഇല്ലാത്തതു കൊണ്ടു തന്നെ നല്ലവണ്ണം ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കുന്നുണ്ട് ഇപ്പോൾ നല്ലവണ്ണം നല്ല നല്ലവണ്ണം ഇത് സീരിയസ്സായൊരു വ്യക്തിയെ നമ്മൾ രക്ഷിക്കാന് കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അത് ഇവിടെയൊന്നും അതുപോലത്തെ സൗകര്യം വലിയ വലിയ ഹോസ്പിറ്റൽ ഇല്ലാത്തതു കൊണ്ട് നല്ലവണ്ണം ബുദ്ധിമുട്ടനുഭവിക്കുന്നുണ്ട് സീരിയസ്സായൊരാളാണ് എത്തിക്കാന് ഈ ഈ എത്തിക്കാന് തന്നെ നല്ലവണ്ണം ബുദ്ധിമുട്ടുണ്ട് സീരിയസ്സായൊരാളാണ് അവിടെ വേറൊരു അതും കുറേ കുറേ സ്ഥല കുറേ ദൂരം പോയിട്ടാണ് നമ്മൾ ചികിത്സ നടത്തുന്നത് അവിടേക്കെത്തുമ്പോഴേക്കും തന്നെ രോഗികൾ മരിക്കുകയും ചെയ്യും ആ വഴിയിലത്തെ വഴിയില് വെച്ചു തന്നെ അങ്ങനെയെല്ലാം ഉള്ളൊരവസ്ഥയാണിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഹെല്ത്ത് അതെല്ലാം ഉണ്ട് ഇങ്ങനെ ഹെല്ത്ത് ഹെല്ത്ത് സര്വ്വീസെല്ലാം ഉണ്ട് അപ്പം നമ്മൾ ഹെല്ത്ത് എന്നെല്ലാം വീട്ടിലേക്കെല്ലാം വന്ന് മിന്ന സ ഇത് ഓരോരോ കണക്കെടുത്തിട്ട് പോകും എന്ട്ട് ഹോമിയോന്റെ എന്തെങ്കിലും ഗുളിക അവർ തന്നിട്ടുള്ളം പോകലുണ്ട് നമ്മളങ്ങോട്ടെല്ലാം പിന്നെ ഹെല്ത്ത് നിന്ന് നമുക്കിപ്പോൾ പെണ്കുട്ടികള്ക്കായാലും പെണ്കുട്ടികള്ക്ക് ഹെല്ത്ത് നിന്ന് കുറച്ച് കിട്ടുന്നുണ്ട് എന് എന്തെല്ലോ അവൾക്കു വേണ്ട പെണ്കുട്ടികള്ക്ക് അത്യാവശ്യം വേണ്ട സാധനമെല്ലാം കിട്ടുന്നുണ്ട് ഹെല്ത്ത് എന്നെല്ലാം പിരീഡ്സ് ടൈമിലെല്ലാം കിട്ടുന്നുണ്ട് അതും കുറഞ്ഞ പൈസക്കാണ് കിട്ടുന്നത് അതു കൊണ്ട് അതീ പാവങ്ങള്ക്കെല്ലാം നല്ല നല്ലുപകാരം ആകുന്നുണ്ട് അതെല്ലാം ഒക്കെ അതെല്ലാം കിട്ടുന്നതു കൊണ്ട് ഇത് അംഗന്വാടിയിൽ നിന്നും അംഗന്വാടിയിൽ നിന്നും നല്ല ഇത് അംഗന്വാടി ടീച്ചറും ടീച്ചറും എല്ലാം വീട്ടിലേക്കു വന്ന് ഓരോരു വീടുകളില് കയറി അവിടുത്തെ എല്ലാം കണക്കെല്ലാം എടുത്തു പോകും അവിടുത്തെ അസുഖവിവരവും അങ്ങനെയെല്ലാം എടുത്തു പോകും നല്ലവണ്ണം വെല്ലുവിളി നല്ലവണ്ണം ബുദ്ധിമുട്ടു തന്നെയാണ് അനുഭവിക്കുന്നത് നമ്മുടെ നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ വലിയ വലിയ ആശുപത്രികളില്ലാത്തതു കൊണ്ടു തന്നെ നല്ലവണ്ണം ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട് അത് വേറൊരു നാട്ടില് പോയിട്ട് നമുക്ക് എല്ലാം ആവശ്യം അവിടെ അസുഖമായിട്ടാണ് വരണമെങ്കില് അങ്ങനെയാണ്